ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒന്ന് മുതൽ എട്ടാം ക്ലാസ്സ് വരെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞീ വിതരണം ഉണ്ടായിരുന്നു ആഴ്ച്ചയിൽ എല്ലാ ദിവസോവും പോഷകാഹാരങ്ങൾ നിറഞ്ഞ ഭക്ഷണം ഭക്ഷണം സാധനങ്ങൾ ആയിരുന്നു ആഴ്ച്ചയിൽ അഞ്ച് ദിവസം കൊടുത്തിരുന്നത് കുട്ടികളിൽ കുട്ടികളേറ്റോം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആഹാരമായിരുന്നു അന്ന് അന്നത്തെ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലെ സ്കൂളുച്ചക്കഞ്ഞി സ്കൂളുച്ചക്കഞ്ഞി പോഷാകാഹാരങ്ങൾ നിറഞ്ഞ കടല സാമ്പാറ് മോര് അങ്ങനെ ഉള്ള ഭക്ഷണം സാധനങ്ങൾ ലഭിച്ചിരുന്നു പയറ് വൻ പയറ് എന്നക്കെ ആയിരുന്നു കുട്ടികൾക്ക് ഏറ്റോവിഷ്ടം ഈ ഉച്ചക്കഞ്ഞി വിതരണം എല്ലാ ബുദ്ധിമുട്ടുകളും ഉള്ള വീട്ടിലെ കുട്ടികൾക്ക് ഉച്ചകഞ്ഞി കൊണ്ട് വരാൻ സാധിക്കുക ഇല്ലായിരുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം എന്നൊരു പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുന്നത് അത്പോലെ തന്നെ ആഴ്ച്ചയിൽ രണ്ട് ദിവസം അതായത് ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങളിൽ പാലും മുട്ടയും വിതരണം ചെയ്തിരുന്നു അത് കുട്ടികളുടെ പോഷകാഹാരം വർദ്ധിപ്പിക്കാനായിട്ട് ആയിരുന്നു കുട്ടികൾ പതിനൊന്ന് മണിക്ക് ഉള്ള ഇട്രവല് ഇൻട്രെവെൽ സമയത്തായിരുന്നു ഈ കുട്ടികൾക്ക് പാൽ വിതരണം ചെയ്തിരുന്നത് പാൽ വിതരണം പാൽ പഞ്ചസാര സാധാ പാലിൽ പഞ്ചസാര മാത്രം ഉപയോഗിച്ചിരുന്നു കൊടുത്തിരുന്നത് കുട്ടികൾക്ക് അത് ഏറ്റോം ഇഷ്ടം ഉള്ളൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലേ കുട്ടികൾക്ക് ഫ്രീ എജ്യൂക്കേഷൻ എന്നൊരു സമ്പ്രദായം അതിനുള്ള സർക്കാരിൻറ്റെ പദ്ധതി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ എല്ലാം ഫ്രീയായും ഒൻപതും പത്തും അങ്ങനെ കുട്ടികൾക്ക് പുസ്തകങ്ങൾക്ക് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയോളം വരുന്ന തുകയാണ് തുകയിലാണ് പുസ്തകം കൊടുത്തിരുന്നത് ഈ തുകയിൽ കുട്ടികൾ എല്ലാവരും സംതൃപ്തി ആണ് ഈ പുസ്തകങ്ങൾ കേരള സർക്കാർ സർക്കാർ ഫ്രീ ആയിട്ടാണ് നൽകി കൊണ്ടിരിക്കുന്നത് ഇന്നും ആ പാഠ്യ പദ്ധതി നടന്ന് കൊണ്ടിരിക്കുന്നത് കേരളാ സർക്കാരിൻറ്റെ ഈ വിദ്യാഭ്യാസം പൊതുജനങ്ങളിൽ നല്ലതുപോലെ നല്ലതുപോലെ ഉൾക്കൊണ്ടിരുന്നു പൊതുജനത്തിന് ഏറ്റവും അത്യാവശ്യ ഘട്ടം അത്യാവശ്യമാണ് കുട്ടികളിൽ ഉള്ള പ്രാരംഭ വിദ്യാഭാസം ഈ പാരംഭ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ഏറ്റവുമായി ഫ്രീ എഡജ്യൂക്കേഷനെന്നൊരു സമ്പ്രദായമാണ് കേരള സർക്കാർ രൂപം കൊള്ളിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഈ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്കും ജനങ്ങൾക്കും ഏറ്റവും നല്ലതുപോലെ സ്വാധീനിച്ചു ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ പഠിക്കാനായിട്ട് സാഹചര്യമില്ലാത്ത വരുമ്പോൾ അവർക്ക് പഠനം എന്നൊരു കാര്യം വലിയ ബുദ്ധിമുട്ടായിത്തീരും അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻറ്റെ ഈ പദ്ധതി കുട്ടികൾക്ക് കുട്ടികൾക്കും ജനങ്ങൾക്കും ഏറ്റോം കൂടുതൽ ഉപകാരപ്പെട്ടിരുന്നു എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലെ കുട്ടികൾ ഓരോ രീതിയിൽ ജീവിച്ച് വരുന്ന സാഹചര്യമല്ലായിരുന്നു അന്നക്കെ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ സീ ബീ സി എന്നൊരു മാർഗ്ഗത്തിൽ പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എജ്യൂക്കേഷൻ ഇല്ലാതെ ആകാതിരിക്കാനാണ് കേരള സർക്കാർ ഫ്രീ എജ്യൂക്കേഷൻ എന്നൊരു സമ്പ്രദായം കൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും ജനങ്ങൾക്കും ഏറ്റോം കൂടുതൽ ഉചിതമായി തീർന്നു ഈ പദ്ധതികൾ എല്ലാം വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു